ഹലോ ഹലോ

അ ആ പറഞ്ഞുകൊള്ളൂ പറഞ്ഞുകൊള്ളൂ അ അതെ അതെ അ ഇവിടെ ഏകദേശം എല്ലാതരം ഓണത്തിനിടുന്ന പൂക്കളുമുണ്ട് ജെമന്തി ചെണ്ടുമല്ലി എല്ലാമുണ്ട്

ആ എല്ലാ പൂവിനും അം കിലോ അമ്പത് രൂപവെച്ചിട്ടാണ് നിങ്ങള്ക്ക് കോളേജിലെ പരിപാടിക്കാണെങ്കിൽ കുറച്ച് ബൾക്കായിട്ട് എടുക്കുന്നതല്ലേ നല്ലത് അല്ലേ ഏത് ദിവസത്തേക്കാണ് ആ അടുത്ത തിങ്കളാഴ്ചയല്ലേ ആ അടുത്ത തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അ അപ്പോള് നിങ്ങളതിന്റെ അത് എങ്ങനെയാണ് അന്ന് രാവിലെ വരികയാണോ ഇല്ലെങ്കില് ഞങ്ങളങ്ങോട്ട് കൊണ്ടുത്തരണമോ കൊണ്ടുതരികയാണെങ്കില് ആ കൊണ്ടുതരികയാണെങ്കില് അത് ദൂരം അനുസരിച്ചിട്ട് നോക്കിയിട്ട് അ അ ഡെലിവറി ചാർജുണ്ട് അത് ദൂരം നോക്കിയിട്ടേ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോള് പറയാന് പറ്റില്ല ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലൊക്കെയാണെങ്കില് ഒരമ്പത് രൂപയൊക്കെയെ ആകുകയുള്ളൂ അഞ്ചിൻ്റെ മുകളിലേക്കാണെങ്കില് പിന്നെ എക്സ്ട്രാ അമ്പത് രൂപയും കൂടെ വേണം ആ അത് നിങ്ങള് പറഞ്ഞാല് മതി ആ ഹാ അത് നിങ്ങള് നിങ്ങളുടെ സൗകര്യം നോക്കി പറഞ്ഞാല് മതി ആ ഞാനെന്നാല് ആ പൂവിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ നമ്പറില് വാട്സാപ്പില്ലേ ആ ആ ഈ നമ്പറിലേക്ക് ഇടാം ഞാൻ പൂവ് എങ്ങനെ പിന്നെ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കില് ഒരു ഇരുപത് ശതമാനം ഓഫറുണ്ട് ആ എല്ലാ കളറുമുണ്ട് ഞാനതിന്റെ കുറച്ച് ഫോട്ടോസും ഡിറ്റൈസിൽസും വാട്സാപ്പിലിടാം നോക്കിയിട്ട് എനിക്ക് എത്ര ഓരോന്നും എത്ര കിലോ വെച്ച് വേണമെന്ന് മെസേജിടണം പിന്നെ കൊണ്ടുതരണമെങ്കില് അത് ദൂരം എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം കോളേജിലേക്കെന്നും പറയണം എന്നാലെ നമുക്ക് ഷിപ്പിങ് ചാർജ് എത്രയാണെന്ന് ആ ആ അമ്പത് അഞ്ച് കിലോമീറ്റർ വരെയാണെങ്കില് അമ്പത് രൂപ മതി പിന്നെ അതില് കൂടുതലാണെങ്കില് അതിനനുസരിച്ചുള്ള പൈസ അന്നേരം പറയാം ആ ഫ്രഷ് ആ ഇതൊക്കെ ഗുണ്ടൽപ്പേട്ട് അവിടെനിന്നൊക്കെ വരുന്നതാണ് തമിഴ്നാട്ടില് നിന്നൊക്കെ

അ അതെ ഫ്രഷാണ് നിങ്ങള്ക്ക് നിങ്ങള്ക്ക് വന്ന് നോക്കാം നോക്കിയിട്ടെടുത്താല് മതി

ആ നോക്കിയിട്ട് പോയാല് മതി ഓക്കെ ഓക്കെ മതി മതി മതി ചെറിയ എന്തെങ്കിലും അഡ്വാൻസ് തരണം തലേന്ന് വരികയാണെങ്കില് ബാക്കി നിങ്ങള് കൊണ്ടുവരികയാണെങ്കില് അങ്ങനെ കേട്ടോ ഓ ആ ഗൂഗിൾപേ ഉണ്ട് ഞാൻ നമ്പർ ഈ നമ്പറല്ല ഗൂഗിൾപേ നമ്പര് ഞാന് മെസ്സേജിൻ്റെ കൂടെ ഇടാം ആ ഓക്കെ ആയിക്കോട്ടെ ആ ശരി ശരി അ അ